ആ ഹലോ നമസ്കാരം എൻ ആ ശെ ശരി

ആ എൻ്റെ പേര് സുരേഷെന്നാണ് ഞാൻ ഗയ്ഡാണ് വിദേശത്തു നിന്നു വരുന്നവരെയൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യുകയാണ് എൻ്റെ ജോലി അപ്പോൾ ഇപ്പോൾ കേരളത്തിലെ കലകളേക്കുറിച്ച് തീർച്ചയായും കേരളത്തിലെ കലകളേക്കുറിച്ച് പറഞ്ഞു തരാനായിട്ടെനിക്ക് സന്തോഷമുണ്ട് അപ്പം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കലയാണ് കഥകളി കഥകളി അതെ ആ കേരളത്തിലെ ഒരു ക്ഷേത്ര കലയാണ് കഥകളി ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളോട് അനുബന്ധിച്ച് പഴയ കാലങ്ങളിൽത്തന്നെ നടത്തിപ്പോന്നിട്ടുള്ളതാണ് കഥകളി കഥകളി കഥകളിക്ക് പ്രത്യേകമായിട്ടുള്ള പദങ്ങളും പദ്യങ്ങളുമൊക്കെ ഉണ്ട് പദ്യം ചൊല്ലാനൊക്കെയായിട്ടുണ്ട് അത് പുരാണങ്ങളിലെ കഥ പദ്യ രൂപത്തിലാണ് കഥകളിപ്പദങ്ങൾ ചൊല്ലാറുള്ളത് കഥകളി അവതരിപ്പിക്കാനായിട്ട് വേദിയിൽ അതിലെ കലാകാരന്മാരുണ്ടാകും അവരേ പച്ചയെന്നും കത്തിയെന്നും അങ്ങനെ വ്യത്യസ്തമായ പേരുകളൊക്കെയാണ് അവർ അറിയപ്പെടുന്നത് ആ പച്ച വേഷങ്ങൾ കത്തി വേഷങ്ങൾ അങ്ങനെ ഏകദേശം എട്ടോളം കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഒരു കഥകളി കഥകളിക്ക് അവർ വന്നു കഥയെല്ലാം പറഞ്ഞ് ക് കഥകളി പുരാണങ്ങളെ പു പുരാണങ്ങളിലെ കഥ പറയുകയാണ് ചെയ്യുന്നത് സാധാരണയായിട്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെ ഒരു തനത് കലാരൂപമാണ് മാർഗ്ഗം കളി മാർഗ്ഗം കളി ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് സാധാരണ അവരാണെങ്കിൽ അവതരിപ്പിക്കുന്നത് വിവാഹത്തിൻ്റെ ആ മാർഗ്ഗം കളി മാർത്തോമാ ശ്ലീഹാ കേരളത്തിൽ വന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൻ്റെ പാദങ്ങളെന്നാണ് പറയുന്നത് അതിനായിട്ടുപയോഗിക്കുന്ന പാട്ടുകളെ അതെ അതെ മാർഗ്ഗം കളിക്കായിട്ടുപയോഗിക്കുന്നത് പിന്നെ മാർഗ്ഗം കളിക്ക് ഒരു കളിയായി ആ ആറ് എട്ട് പന്ത്രണ്ട് അങ്ങനെ ഇരട്ട സംഖ്യകളുള്ളതാണ് നടുക്ക് നടുക്ക് നിലവിളക്ക് കത്തിച്ചു വെച്ചതിനു ശേഷം അതിനു ചുറ്റും നിന്നിട്ട് ഇങ്ങനെ കൾ ഇങ്ങനെ അവരാണെങ്കിൽ ആദ്യമൊരു വന്ദന പാദമുണ്ട് വന്ദന പാദം ചൊല്ലി കളിച്ചതിനു ശേഷം പാദങ്ങൾ തുടർ പാദങ്ങൾ ചൊല്ലി പോകുന്നു അങ്ങനെയാണ് മാർഗ്ഗം കളിയുടെ സിസ്റ്റം ഉം പിന്നെ കേരളമത് ആ കേരളത്തിലുള്ള ഒരു ക്ഷേത്ര കലയാണ് ചാക്യാർക്കൂത്ത് ചാക്യാർ വന്നു നാട്ടിലെ ദേശത്തുള്ള കഥകൾ പറയുകയാണ് ചെയ്യുന്നത് ചാക്യാരൊരു

തീർച്ഛയായിട്ടും നന്ദി പറയുന്നു സന്തോഷം